അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുവത്തി മൂന്ന് ആറ് പത്ത് രണ്ടായിരത്തി രണ്ട് ഏഴ് എട്ട് രണ്ടായിരത്തി ഒന്ന് ഇരുവത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി നാല്